എൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ അഭിമാനമുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എപ്പോഴും സന്തോഷത്തോടുകൂടി ഞാൻ പറയുന്നൊരു വിഷയമാണ് ഉറപ്പായിട്ടും അഭിമാനിക്കുന്നൊരു കേരളത്തിൽ ജനിച്ച ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ ഉറപ്പായിട്ടും അഭിമാനിക്കുന്നൊരു വിഷയമാണ് ഒരു കാര്യമല്ല ഒത്തിരി സംസ്കാര പൈ സാംസ്കാരിക പൈതൃകങ്ങളെ പറ്റി എനിക്ക് പറയാൻ പറയാനുണ്ട് ഒന്നാമത് ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആദ്യമേതന്നെ ഞാൻ ഓണം എല്ലാവരും സന്തോഷകരമായി ജാതിഭേദമന്യേ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നൊരു ഉത്സവം വീടുകളിൽ അത്തപൂക്കളമിടുക വളരെ കൾച്ചർ സാംസ്കാരികമായിട്ട് വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെയുള്ള രീതിയിലൊക്കെ ആണ് ഇങ്ങനെ ഒരു ഉത്സവം അവർ നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് ഇപ്പോൾത്തന്നെ വീട്ടിൽ സദ്യ ഒരുക്കി പലകൂട്ടം കറികൾ വച്ച് എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ച് അങ്ങനെ സന്തോഷമായിട്ടാണ് നമ്മളീ ഒരു ആ ഈ ഒരു ഓണമെന്ന് പറയുന്ന ഉത്സവം ആഘോഷിക്കുന്നത് തന്നെ കുടുംബത്തിൽ ഓണം വരുന്നെന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ടാണ് ഇത് കൊണ്ടാടുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതിപ്പോൾ ഒന്ന് ഓണം തന്നെ പറയാം രണ്ടാമത്തേത് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെത്തന്നെ ആറന്മുള കണ്ണാടി ആറന്മുള വള്ളംകളി ഇതൊക്കെ നമ്മുടെ സാംസ്കാരികപൈതൃകത്തിൽ കേരളത്തിൻ്റെ സംസ്കാരിക സാംസ്കാരിക പൈതൃകത്തിൽ മുന്നോക്കം നിൽക്കുന്നൊരു കാര്യം തന്നെയാണ് ഈ ഒരു ആറന്മുള കണ്ണാടി എന്നുള്ളത് അതേപോലെത്തന്നെ ആറന്മുള വള്ളംകളി പിന്നെ കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇപ്പം പത്തനംതിട്ട ജില്ലയിലെ തന്നെയാണെങ്കിൽ ശബരിമല എന്ന് പറയുന്നൊരു സംഭവം എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്നൊരു ഒരു ഒരു സാംസ്കാരിക കേന്ദ്രം തന്നെയാണ് അപ്പം എല്ലാ വർഷവും അവിടേക്ക് പോകുന്നതൊക്കെ നമുക്ക് ഒരു ഒരു ഞാനൊക്കെ ഭയങ്കര സന്തോഷത്തോടുകൂടി നോക്കി കാണുന്നൊരു സ്ഥലം തന്നെയാണത് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ആ ഒരു വസ്ത്രധാരണ രീതിതന്നെ എന്തെങ്കിലുമൊരു ആഘോഷം വരുമ്പോഴത്തേക്കും പെൺകുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകള മുതിർന്ന സ്ത്രീകളാണെങ്കിലും സെറ്റും മുണ്ടുമൊക്കെ ഉടുത്ത് ആണുങ്ങളാണെങ്കിൽ മുണ്ടും ഷർട്ടുമൊക്കെ ധരിച്ച് ആ ഒരു സന്തോഷത്തിൽ ആ ഒരു ഇണങ്ങി നമ്മുടെ ആ ഒരു സംസ്കാരത്തിനോട് ഇണങ്ങി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ വരെ വളരെ അധികം അഭിമാനം തോന്നിയിട്ടുണ്ട് വേറെ രാജ്യത്ത് നിന്ന് ആൾക്കാർ ഇവിടെ ഇപ്പം നമ്മുടെ എന്താ പറയുക കലാരൂപങ്ങളാണെങ്കിൽ തന്നെ കഥകളി അതേപോലെത്തന്നെ മോഹിനിയാട്ടം പിന്നെ ഭരതനാട്യം എല്ലാ തരത്തിലുള്ള കലകളും ഇവിടെ അഭ്യസിക്കുന്നുണ്ട് കളരിപ്പയറ്റ് വേറെവിടെയും ഇല്ലാത്ത ഒരു കാര്യമാണ് കളരിപ്പയറ്റ് എന്നുള്ളത് കളരിപ്പയറ്റൊക്കെ ഇവിടെ വളരെ അധികം നമ്മളുടെ എന്താപറയുക കുട്ടികളെ പരിശീലിപ്പിക്കുകയും അതിൻ്റെ മത്സരങ്ങൾ നടത്തുകയും ചെയ്യുന്നൊരു ഒരു എരിയയാണ് സംസ്കാരിക പൈതൃകത്തെ എപ്പോഴും മുന്നോക്കം നിർത്തുന്നൊരു സംഭവം തന്നെയാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത് അപ്പം എന്നോട് അഭിമാനമുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എപ്പോഴും ഉറപ്പായിട്ടും എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം അഭിമാനം തന്നെയാണ് കേരളമെന്ന് കേരളത്തിൽ ജനിച്ചതിൽത്തന്നെ വളരെ അഭിമാനിക്കുന്നൊരാളാണ് ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എന്തായാലുമെനിക്ക് അഭിമാനം മാത്രമേ ഉളളൂ പിന്നെ വേറെ സംസ്കാരത്തെ പറ്റിയിട്ട് അധികം പറയാനാണെങ്കിൽ സംസ്കാരിക പൈതൃകത്തെ പറയാനാണെങ്കിൽ ഈവൻ നമുക്ക് നമ്മുടെ ആഘോഷങ്ങൾ മാത്രമല്ല വസ്ത്രധാരണം മാത്രമല്ല നമ്മുടെ ഭക്ഷണരീതിവരെ ഈവൻ സദ്യ ഒരുക്കുമ്പോൾ പലകൂട്ടം കറികൾ പപ്പടം പായസം പരിപ്പ് സാമ്പാറ് പുളിശ്ശേരി ഓലൻ കാളൻ അവിയൽ ഈ ഇങ്ങനത്തെ ഉള്ള എല്ലാ കറികളും ഉൾപ്പെടുത്തി ആ ഒരു എന്താപറയുക മാംസാഹാരങ്ങൾ മത്സ്യമാംസാഹാരങ്ങൾ ഉൽപ്പെടുത്താതെ വളരെ നമ്മുടെ ശരീരത്തിന് നന്നേ നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണമായിരിക്കും സദ്യയെന്ന് പറയുന്നത് വേറെ ഏത് സ്ഥലത്തെ സദ്യ എന്ന് കേൾക്കുമ്പോൾത്തന്നെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഓർക്കുന്നത് കേരളം എന്നൊരു സ്ഥലമാണ് പിന്നെ പല ആൾക്കാർ അത് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നു പായസം കുടിക്കാൻ വരുന്നു അതൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക ഒരു എന്താപറയുക സാംസ്കാരിക പൈതൃകമാണെന്ന് തന്നെ നമുക്ക് പറയാൻ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും അതൊക്കെയാണ് പിന്നെ ഈവൻ സ്കൂളുകളിലാണെങ്കിലും കുട്ടികളെ ഈ ഇങ്ങനത്തെ പൈതൃകപരമായ ആഘോഷങ്ങൾ അത് എന്താപറയുക ആഘോഷിക്കാനും അതേപോലെത്തന്നെ ആ പൈതൃകശൈലിയിൽ വസ്ത്രങ്ങൾ ധരിക്കാനും അങ്ങനെ ആഘോഷങ്ങൾ വരുമ്പോൾ അങ്ങനെയൊക്കെ സ്കൂളുകളിലാണെങ്കിലും ഒക്കെ കുട്ടികളെ എന്താണ് സ്കൂളുകൾ പ്രോമോട്ട് ചെയ്യാറുണ്ട് അതൊക്കെയാണ് എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സാംസ്കാരികപൈതൃകത്തിൽ അഭിമാനം തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നുള്ള ഘടകം